ആ ഹലോ ചെറുതലയം ഗ്യാസ് ഏജൻസിയല്ലേ ആ ഞാനേയ് എന്റെ കസ്റ്റമർ ഐ ഡി പറയാമേ തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തേഴ് പതിനെട്ടാണെ ആ പേര് റോസമ്മ അപ്പോൾ ഞാനെന്റെ ജോലിയുടെ ഭാഗമായിട്ട് നെടുമുടി പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടി പോവുകയാണെ അപ്പോൾ ഇവിടെ അടുത്ത് നെടുമുടി പഞ്ചായത്തിലുള്ള ചെറുതലയം ഗ്യാസ് ഏജൻസിയിലേക്ക് എനിക്കതൊന്ന് മാറ്റിത്തരണം അപ്പോൾ ഞാൻ അതിന്റെ പിന്നെ കാര്യങ്ങൾ എങ്ങനെ ആണ് എന്താണത് ചെയ്യേണ്ടത് നേരിട്ട് അവിടെ വരണോ അതോ അപ്ഡേറ്റ് ചെയ്തു തരുമോ ആ ഓക്കേ ഓക്കേ ഞാൻ എന്റെ ആധാർ കാർഡും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഐ ഡി കാർഡും ഇവിടുത്തെ മരു മെമ്പറിന്റെ ലെറ്ററൊക്കെ ഞാൻ ഇപ്പോൾ ഒരു വാട്ട്സ്അപ്പ് ചെയ്തു തരാമേ എനിക്ക് ഈ അപ്പോൾ ഒന്ന് എനിക്ക് അപ്ഡേഷൻ ചെയ്തു തന്നേക്കണേ എനിക്ക് ഈ ഗ്യാസ് ഇനി അടുത്തത് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെയ്തു തരുമല്ലോ അല്ലെ ആ ഓക്കേ ഓക്കേ താങ്ക് യു ഞാൻ അത് അറിയാൻവേണ്ടി വിളിച്ചതാണ് കേട്ടാ താങ്ക്സ് ഏഹ്